ഹലോ ഹലോ ആ ചേട്ടാ മറ്റെ ഞങ്ങളെ വീട് പണിത കോൺട്രാക്ടറല്ലായിരുന്നോ ആ അതേ ഞങ്ങളിതുപോലെ കുറ്റിയൊക്കെ അടിച്ചിട്ടേക്കുകയാണ് അപ്പോള് നിങ്ങളെന്നത്തേക്കാണു പണി തുടങ്ങുന്നത് ആ രണ്ടു ദിവസം കഴിഞ്ഞ് അപ്പോള് ഞങ്ങള് കുറ്റി അടിച്ചിട്ടപ്പോള് ഞാന് ഇതുപോലെ ബാക്കി പേയ്മെന്റെന്തെയ്യണം ആ അപ്പോള് നിങ്ങള് ആ അപ്പോള് നിങ്ങള് ഫുള്ള് ഇത് ചെയ്തോളുകയില്ലേ അപ്പോള് എനിക്ക് വേറെ കോൺട്രാക്റ്റേഴ്സിനെ ഏൽപ്പിക്കണ്ടല്ലോ ബാക്കി ഇതുപോലെ തേപ്പ് വർക്ക് പെയിൻറ്റിംഗെല്ലാം നിങ്ങളെല്ലാം കൂടെയല്ലേ എല്ലാം കൂടെ നിങ്ങളെയ്തൂല്ലോ പെയ്ന്റ് പണി പെയ്ന്റിംഗും അതുപോലെ ആ ആ ആ അപ്പോള് നിങ്ങള് സ്ക്വയർ ഫീറ്റിനെങ്ങനെയാണ് റേറ്റ് പറയുന്നത് ആ അല്ലപ്പോള് ഈ നിങ്ങള് ഈ ടൈലിൻ്റെ പണിയെല്ലാം എടുക്കുമല്ലോ പ്ലംബിംഗ് വേറെ ആ അപ്പോള് ഞങ്ങളിപ്പോള് കുറ്റിയടിച്ചിട്ടേക്കുകയാണ് അപ്പോള് വാനം തോണ്ടട്ടെ നിങ്ങളെ വിളിക്കണോ അതോ വേറെ ടീമിന്റെ കയ്യില്നിന്ന് ഹിറ്റാച്ചി എടുക്കണോ എന്നാണു ചോദിച്ചത് അപ്പോള് വാനം ആ അപ്പോള് നാളെ നാളെ രാവിലെ ആ നാളെ രാവിലെ ആ ഒമ്പതരയ്ക്ക് ഒരു ശുഭ മുഹൂർത്തത്തില് നിങ്ങള് ഞങ്ങള് കുറ്റി അടിച്ചിട്ടേക്കുകയാണ് അപ്പോള് ഈ തറക്കല്ലിടാന്വേണ്ടി ഇത് വാനം എടുക്കാമോ എന്നിട്ട് നാളത്തെ കഴിഞ്ഞിട്ട് മറ്റന്നാളത്തേക്കു തറക്കല്ലിടാനായിരുന്നു

ആ ആ ഒമ്പതരയൊക്കെയായത്തേക്ക് നിങ്ങള് വന്നിട്ട് പിന്നെ ഇതുപോലെ നിങ്ങളുടെ ഈ ജെ സി ബിയുടെ ചാർജെങ്ങനെയാണ് റെൻ്റെങ്ങനെയാണ് ഒരു ആണല്ലേ ആ ആ ആ അത് ഒരു പിന്നെ ഈ മണ്ണു ഞങ്ങളെ വീണ്ടും വെച്ചിട്ടേ ഇച്ചിരി മണ്ണ് കൂടുതല് കാരണം ഞങ്ങളൊരു മൂവായിരം സ്ക്വയർ ഫീറ്റിലാണു വീട് പണിയാൻ ഉദ്ദേശിക്കുന്നതേ അപ്പോള് മണ്ണ് കൂടുതലുണ്ടപ്പോള് നിങ്ങള് പുറത്തോട്ട് കൊണ്ടുപോയേച്ച് ആ ആ ആ അങ്ങനെ ചെയ്യാം അതുപോലെ ഇതുപോലെയിപ്പോള് എൻ്റൊരു ഫ്രണ്ടിൻ്റെ വീടും പണിയണമെന്നൊക്ക പുതുക്കി പണിയണമെന്നു പറഞ്ഞപ്പോഴത് അതും കൂടെ നിങ്ങള്ക്ക് നിങ്ങളുടെ നമ്പര് ഞാന് കൊടുത്തിണ്ടപ്പോള് എൻ്റെ കൂട്ടുകാരന് വിളിക്കുമപ്പോള് അവൻറ്റേന്ന് പഴയ വീടാണപ്പോള് പഴയ രീതിക്ക് വിളിക്കുക ഇതു ചെയ്യാനാണ് പണി ചെയ്യാനാണ് അപ്പോള് അതുകൂടെയൊന്ന് ആ ആ ആ ഓക്കെ കെട്ടോ